ഹലോ ആ ഹലോ മാനേജർ സർ അല്ലെ ആ സർ എനിക്ക് ഒരു ടൈലറിങ്ങ് ഷോപ്പിൻ്റെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ആയിരുന്നു അപ്പോൾ ലേഡീസിനൊക്കെ വെച്ചിട്ട് അപ്പോൾ എനിക്ക് ഒരു ആറ് പവൻ പണയം വെച്ചിട്ട് അതിനുള്ള ഒരു ആ വേണമായിരുന്നു

ആ ആ അതേയല്ലേ അപ്പോൾ എനിക്ക് ഇതിൽ എന്തായാലും ഒരു രണ്ട് കൊല്ലത്തിനുള്ളിലേ അടച്ച് തീർക്കാൻ പറ്റുള്ളൂ ഇതിന്റെ അപ്പം ആ ആ ആഹ് ആഹ് അപ്പോൾ ഇതിന് എന്തായാലും ഇപ്പോൾ എനിക്ക് നാളെ തന്നെ കൊണ്ടുന്നാൽ റെഡി ആക്കി തരാൻ പറ്റുമോ സർ ആ ഇതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഇനി ഈ പ്രൂഫും കാര്യങ്ങളും ഒക്കെ മതി ആയിരിക്കും അല്ലെ വേറെ ഒന്നും ആ ആ പിന്നെ ആഹ് ഒരു ലേഡീസ് ടൈലറിങ്ങ് ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ആയിരുന്നു അതെ അതിനുള്ളത് ഇപ്പോൾ തൽക്കാലം അത് മതി പിന്നീട് നമുക്ക് ആവശ്യം വന്നാൽ ബാങ്ക് ആയിട്ട് ബന്ധപ്പെടുത്തില്ലേ എന്നാ സർ ഞാൻ ഉടനെ തന്നെ ഇതിനുള്ള പരിപാടികൾ തുടങ്ങിക്കോട്ടെ ആ എന്തായാലും രണ്ട് ദിവസത്തിന് ഉള്ളിൽ ഞാൻ വരാം അർച്ചന ഇത് മാനന്തവാടീൽ തന്നെയാ ടൗണിൽ തന്നെയാ ആ കൊണ്ടുവരാം കൊണ്ടുവരാം എന്നാ ശരി സർ താങ്ക് യു ഒരുപാട് ഉപകാരം ശരി ശരി ഓക്കെ